നമ്മള് പണ്ട് മുതലെ കണ്ട് വരുന്ന ഒരു വിവാഹത്തിലെ സം ചടങ്ങുകളന്നൊക്കെ പറയുന്നത് ഓരോ ഓരോ സമുദായത്തിലും ഓരോ മതത്തിനും അനുസരിച്ച് വ്യത്യാസമായിരിക്കും ഇപ്പോൾ ക്രിസ്ത്യന് കുടുംബത്തിലെ ഒരു വിവാഹമാണെങ്കില് വരന്റെ വരന്റെ ന്ത് വെച്ച് അല്ലെങ്കില് പള്ളിയിൽ വെച്ചായിരിക്കും കല്യാണം നടക്കുക ഹിന്ദു സമുദായത്തില് പെട്ടതാണെങ്കില് അത് പെണ്കുട്ടിയുടെ വീട്ടിലായിരിക്കും മുസ്ലിം സമുദായമാണെങ്കിലും അത് പെണ്കുട്ടിയുടെ വീട്ടില് വെച്ചായിരിക്കും വിവാഹം നടക്കുക

ഇപ്പോള് നമ്മള് അങ്ങനെ ഈ പണ്ടുണ്ടായിരുന്ന ആചാരങ്ങള് അതേപടി പിന്തുടരുന്നൊന്നുമില്ല മറ്റ് മറ്റ് ഇടങ്ങളിലെ സംസ്കാരമാണ് നമ്മളിപ്പോഴും കൂടുതലാണ് ഉപയോഗിക്കുന്നത് പണ്ട് കാലത്ത് എന്താ ഈ തലേദിവസത്തെ പരിപാടിന്നൊക്കെ പറയുന്നത് വളരെ ലളിതമായിട്ട് അടുത്ത ബന്ധുക്കള് മാത്രമായിട്ട് ചുരുങ്ങി നിന്ന ചടങ്ങാണ് എന്നാലിപ്പോഴ് അങ്ങനെയല്ല മറ്റു രാജ്യങ്ങളിലെയെക്കെ നമ്മള് പിന്തുടരുന്ന വഴി ഇപ്പോള് തലേദിവസത്തെ വിവാഹത്തിന്റെ തലേന്നത്തെ പരിപാടിയൊക്കെ വളരെ ഗംഭീരമായിട്ടാണ് ഇന്ന് നമ്മള് കൊണ്ടാടുന്നു